ആ സ്കൂളിൽ നൃത്ത പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാലാം ക്ലാസ്സിലൊരു പരിപാടി വന്നപ്പം ഡാൻസ് പഠിച്ചിട്ടുണ്ട് അതിൽ ഇപ്പം എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചാടിക്കറങ്ങി സിനിമാറ്റിക് മോഡല് ഡാൻസ് ഒക്കെയായിരുന്നു അത് കഴിഞ്ഞ് പ്ലസ് ടൂത്തൊരു ഒരു പരിപാടിക്കും നുമ്മ നല്ല വലിയ സെറ്റ് അപ്പിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ പരിപാടിക്കും ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ എല്ലാ വെച്ചാൽ സ്റ്റണ്ട് മോഡലിലുള്ള ഡാൻസുകളാണ് അപ്പം പ്ലസ് ടൂ തീം നാലാം ക്ലാസ് ഒക്കെ ഡാൻസ് വെച്ചതിന് വെരി അടിപൊളിയായിരുന്നു കുറേ പേര് ഒരു ഓരോ ആൾക്കാർ ഡാൻസ് മാസ്റ്ററ കൊണ്ട് പഠിപ്പിക്കുക പിന്നെ കുറേ പേര് വന്നിട്ട് ഇങ്ങനെ ഓരോ ഓരോ സ്റ്റെപ്പ് ഇടുക പൊട്ടത്തരങ്ങൾ കാണിക്കുക ഒരാൾ അടിച്ച് കിട്ട് വീഴുക നല്ല എക്സ്പീരിയൻസായിരുന്നു ഒരാൾ തലകുത്തനെ മറിയുമ്പോൾ അടിച്ച് കുത്തി വീഴുക ചിരിക്കാനും പിന്നെ കുറെ അപ്പോഴത്തെ ആൾക്കാരൊക്കെ നല്ല നല്ല ചെക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയൊക്കെയായിരുന്നു ലൈഫ് ഒക്കെ അടിപൊളി ആയിരുന്നു പിന്നെ സ്കൂൾ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തൊരു ബെറ്റർ ഓപ്ഷന ആയിരുന്നു ഡാൻസ് ഒക്കെ വരുക ഒരു എന്ത് പറഞ്ഞിട്ട് ഇപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കഴിഞ്ഞു എല്ലാം ഓർമ്മകളും മാത്രമായി